ഹലോ ഇത് മുൻസിപ്പൽ ഓഫീസല്ലേ ഞങ്ങൾ ഞാൻ കുറിച്ചിയിലാണ് താമസിക്കുന്നത് എൻ്റെ വീടിന് സമീപത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം നടന്നു ആ ഉത്സവം മൂന്നാലു ദിവസം നീണ്ടു നിന്നായിരുന്നു അതിനുശേഷം ഇന്നലെ രാത്രിയിൽ ഉത്സവം തീർന്നപ്പോൾ പരിസരം മുഴുവനും വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ് ഐസ് ക്രീം വിറ്റവരും അതുപോലെതന്നെ ഭക്ഷണപ്പൊതികളും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എന്താ അതിൻ്റെ മുൻനടപടി എടുക്കണമെന്ന് ഞാനങ്ങയോട് വിനീതമായി അപേഷിക്കുകയാണ്